ഇപ്പോൾ പാട്ടിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ കൂടുതലായിട്ട് നമ്മൾ ശ്വാസം വിടുന്നതിനെയാണ് നമ്മൾ കൂടുതലായിട്ടും മെച്ചപ്പെടുത്തേണ്ടത് കാരണം നമ്മൾ ഈ ശ്വാസം നമ്മൾ നല്ലവണ്ണം പിടിച്ച് വയ്ക്കുന്നതിനെ വെച്ച് ഇപ്പോൾ ഗംഗേ എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മൾ പാടുകയാണെങ്കിൽ ഒരു കുറേ സമയം നമ്മൾ ശ്വാസം ഇങ്ങനെ ഗംഗേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ തന്നെ വയ്ക്കുവാണെങ്കിൽ ആ പാട്ടിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ശ്വാസം നമ്മളെ പാട്ടിൻറെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ശ്വാസം നമുക്ക് പിടിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇപ്പോൾ എന്താണ് പറയുക ഒരു ബ്രീത്തിങ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് പോലെ നമ്മൾ ഡെയിലി ശ്വാസം വലിച്ച് പിടിക്കുക കുറേ നേരം നമ്മൾ ടൈം നോക്കി ടൈമർ വെച്ചിട്ട് നമ്മൾ ഡെയിലി ശ്വാസത്തെ കണ്ട്രോൾ ചെയ്ത് വയ്ക്കാൻ വേണ്ടി സാധിക്കണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ശ്വാസത്തെ കണ്ട്രോൾ ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലൊരു രീതിയിലുള്ള പാട്ടുകളൊക്കെ നമുക്ക് പാടാനും ഒക്കെ സാധിക്കുന്നതാണ്